ഹലോ മാം ഞാൻ രണ്ടു മിനിറ്റ് മുമ്പ് ഒരു ക്യാബ് ബൂക്ക് ചെയ്തായിരുന്നു പക്ഷേ പെട്ടെന്ന് എനിക്ക് ഒരു അർജൻറ്റായിട്ട് വേറൊരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാനത് ആ ക്യാബ് ക്യാൻസൽ ചെയ്തിട്ടൊണ്ട് പക്ഷേ എൻ്റെ ഓല വാലെറ്റിൽ നിന്ന് നൂറ് രൂപ പോകേണ്ടതിന് പകരം ഇരുന്നൂറ് രൂപ അക്കൗണ്ടീന്ന് കട്ടായിട്ടുണ്ട് ആ വാലെറ്റിന്ന് ഞാനിപ്പം ഊബർ ഇവിടെ എത്തിയിട്ടുല്ല ഞാൻ അതിൽ യാത്ര ചെയ്തിട്ടൂല്ല അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വാൽറ്റ് വാലെറ്റിൽ നിന്ന് പോയ ഇരുന്നൂറ് രൂപ റീഫണ്ട് ചെയ്ത് തരണം എന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റല് ഹോസ്പിറ്റൽ കേസ് വന്നു അതിൻറ്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് ക്യാബിൽ യാത്ര ചെയ്യാൻ പറ്റീല അതുകൊണ്ട് എത്രയും വേഗം എനിക്ക് എൻ്റെ പൈസ റീഫണ്ട് ചെയ്ത തരണംന്ന് പറയുന്നു കുറേ നേരാമായിട്ട് ഇതൊരു ഈയൊരത്യാവശ്യ കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഞാൻ കുറേ നേരായിട്ട് നിങ്ങളെ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷേ ഇതുവരെ നിങ്ങൾ കുറേ നേരം വിളിച്ചിട്ടും നിങ്ങളെടുത്തില്ല അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം എനിക്കെൻറ്റെ പൈസ റീഫണ്ട് ചെയ്ത് തരണം ഞാൻ പോണോന്ന് വിചാരിച്ച് തന്നെ ബുക്ക് ചെയ്ത ക്യബായിരുന്നു പക്ഷേ എനിക്കൊരു അത്യാവശ്യം വന്നതു കൊണ്ടാണ് എനിക്കതിൽ യാത്ര ചെയ്യാൻ പറ്റാഞ്ഞത് അതിൽ എന്നോട് ക്ഷമിക്കണം എത്രയും വേഗം നിങ്ങൾ എനിക്കെൻറ്റെ പൈസ എൻ്റെ വാലെറ്റിൽ നിന്ന് പോയ ഇരുന്നൂറ് രൂപ എനിക്ക് റീഫണ്ട് ചെയ്യണമെന്ന് പറയുന്നു